അഭിമാനകരമായ നേട്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ജോലി നേടാൻ പറ്റി നമ്മളിപ്പം ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണല്ലോ അപ്പോൾ നമ്മൾ പഠിച്ചതിന് ഒരു ഗുണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടുക ആ കാര്യമാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് അപ്പം നല്ല രീതിയിൽ ഒരു ജോലി എനിക്ക് നേ നേടാൻ പറ്റി പിന്നെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു എല്ലാവരും ഇപ്പോൾ എന്താണ് പറയുക വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ഒരു ടൈപ്പ് ഒക്കെ ആയി മാറിയിട്ടുണ്ട് അപ്പം എൻ്റെ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അപ്പോൾ എൻ്റെ വൈഫും കുറച്ച് ഫ്രീ മൈൻഡ് ആയതുകൊണ്ട് എനിക്ക് നല്ല രീതിയിലുള്ള ഫ്രീഡവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ നല്ല രീതിയിലുള്ള ഒരു ജോലിയായത് കൊണ്ട് എനിക്ക് അവരെ നന്നായിട്ട് നോക്കാനും വൈഫിനേയും കുട്ടീനെയും ഒക്കെ നല്ല രീതിയിൽ നോക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ഒരു ല ലൈഫ് സെറ്റിൽ ആയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എനിക്കൊരു വണ്ടി വാങ്ങണം എന്ന് തോന്നി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് അത്യാവശ്യം ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇ എം ഐ ഇട്ടിട്ട് ആണെങ്കിലും ഒരു വണ്ടി വാങ്ങാൻ പറ്റിയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉള്ള എൻ്റെയൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും നല്ല നേട്ടം ഉണ്ടായത് എന്നെ ആദ്യം തൊട്ടേ പഠിപ്പിച്ച എൻ്റെ അച്ഛൻ അമ്മമാരുടെ ഒരു പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് എന്നൊക്കെയാണ് എന്റെ ഒരു വിശ്വാസം